ചരിത്രപരവും സാംസ്കാരികവുമായി പ്രാധാന്യമുള്ള പാതയിലൂടെ ഞാൻ ഒരിക്കലും ഹൈക്ക് ചെയ്തിട്ടില്ല അങ്ങനെയൊരനുഭവം ഇന്നു വരെ എനിക്കുണ്ടായിട്ടില്ല എന്നാൽ കോളേജുകളിൽനിന്നു വിദ്യാഭ്യാസസ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ ഒരുപാട് പഠനയാത്രകൾ പോകാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പഠനയാത്രകൾ ഒരുപാട് സ്ഥലത്തു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കണ്ണൂര് കോഴിക്കോട് തൃശ്ശൂര് തിരുവനന്തപുരം അങ്ങനെയൊക്കെയള്ള സ്ഥലങ്ങളില് സാംസ്കാരിക പ്രശസ്തിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളതിനെപ്പറ്റി അന്വേഷിച്ചു കണ്ടു പിടിക്കാനായിട്ടുള്ള താല്പര്യം കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനെ പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഇടയ്ക്കു പോകേണ്ടി വന്ന പോയ ഒരു സ്ഥലമാണ് തൃശ്ശൂര് തൃശ്ശൂര് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ പോവുകയും അതോടൊപ്പം നമ്മള് എല്ലാവരും കൂടെ കണ്ട് കേട്ടറിഞ്ഞ് അവിടത്തെപ്പറ്റി കൂടുതലറിയാനായിട്ടു സാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ ഒരുപാട് നല്ല നല്ല അവസരങ്ങുണ്ടായി ഒരുപാട് കാലിക പ്രസക്തിയുള്ള ഒരുപാട് സംസ്കാരങ്ങളും ഓരോരോ ഓരോ അഭിരുചികളും കണ്ടറിയാനായിട്ടുള്ള സാഹചര്യങ്ങള് ഉണ്ടായിരുന്നു വളരെ നല്ല ഒരു ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ചരിത്രപരവും സാംസ്കാരികവും പ്രാധാന്യമുള്ള ഒരുപാട് പാതയിലൂടെ സഞ്ചരിക്കാനായിട്ടും ഓരോ കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ടും അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചറിഞ്ഞ് അതിനെപ്പറ്റി സംസാരിക്കാനായിട്ടും ഒക്കെയുള്ള അവസരങ്ങൾ ഒരുപാട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു സാഹചര്യം കൊണ്ട് ഒരുപാട് നല്ല അനുഭവം ഉണ്ടാവാനായിട്ടു സാധിച്ചിട്ടുണ്ട് ഒരിക്കലും മറക്കാനാവാത്ത ഓരോ യാത്രകളായി ഓരോ ട്രക്കിങ്ങും അല്ലെങ്കിൽ ഓരോ ഹൈക്കും ഓരോ യാത്രകളും എല്ലാം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നല്ല അനുഭവങ്ങളാണ് ഓരോ യാത്രയിലൂടെയും ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് ഓരോരുത്തരുടെ അഭിരുചികളറിയാനും ഓരോ സംസ്കാരങ്ങൾ നോക്കിക്കാണാനും എല്ലാം നമുക്ക് ഇതിനാൽ സാധിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ വളരെ നല്ല അനുഭവമാണ് ഓരോ സ്ഥലത്തിൽ നിന്നും ഓരോ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ഉണ്ടാവാനായിട്ടു സാധിച്ചിട്ടുള്ളത് ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളായിരുന്നു അങ്ങനെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഓരോ യാത്രയിലൂടെയും എനിക്ക് ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്താണെങ്കിലും തൃശ്ശൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും അതുപോലെ തന്നെ കണ്ണൂരാണെങ്കിലും ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അവിടെ സമയം ചെലവഴിക്കാനും എനിക്കു സാധിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളോടൊപ്പമുള്ള പഠന യാത്രകൾ എന്നെ അതിന് ഒരുപാട് നല്ല രീതിയില് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ചരിത്രപരവും സാംസ്കാരികപരവുമായ പ്രാധാന്യമുള്ള വളരെ വലിയ പാതകൾ സഞ്ചരിക്കാനായിട്ടുള്ള അനുഭവങ്ങൾ അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഓക്കേ